ഞാൻ പാചകം ചെയ്യാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മെയിനായിട്ടൊരു പത്താം ക്ലാസ്സ് ആ ടൈമിലൊക്കെ ആയിരുന്നപ്പോഴാണ് അപ്പോൾ ഞാൻ എന്റെ വീട്ടിലിണ്ടായിരുന്നവരെ അച്ഛനമ്മ അവരൊക്കെ വേറൊരു സ്ഥലത്തേക്ക് പോയതായിരുന്നു അപ്പോൾ ഞാനെന്ത് ചെയ്തു ഞാൻ വീട്ടിൽ ഒറ്റക്കാണ് അപ്പം എനിക്ക് വേറെ നിവർത്തി ഇല്ല അപ്പോൾ പാചകം ചെയ്യാണ്ട് അപ്പോൾ പുറമേ കഴിക്കാനുള്ള ക്യാഷ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ തൽക്കാലത്തേക്ക് പിന്നെ ഒരു എന്താപറയാ ഇപ്പോൾ ദോശ കാര്യങ്ങളൊക്കെ ചുട്ട് പിന്നതിനൊരു ചെറിയൊരു ചട്ണി പോലെ അതായത് ചെറിയൊരു സാലഡ് പോലെ ഉണ്ടാക്കി അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എന്തോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലരീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞുന്നാണ് എന്റെ ഒരു വിശ്വാസം എനിക്ക് വലിയ കുഴപ്പം തോന്നീല്ല പിന്നെ ബാക്കിയുള്ളവർ കഴിക്കുമ്പോഴാണല്ലോ ഒരു പ്രശ്നം വരുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെയാണ് ഞാനാദ്യത്തെ ഒരു ഇതിണ്ടാക്കിയത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് അരി അരക്കുന്നു ഇതിണ്ടാക്കുന്നു പിന്നെ അത് അതിൻറെ കൂടെ നമ്മൾ എന്ത് ചെയ്യാ രണ്ടുദിവസത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായില്ല അത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേദിവസം പുട്ടുണ്ടാക്കുന്നു പുട്ട് നല്ല രീതിയിലാവുന്നു അപ്പോൾ അതൊക്കെയാണ് ഒരു മെയിനായിട്ടുള്ള ഒരനുഭവം എന്നൊക്കെ പറഞ്ഞാൽ